യാത്രാ വ്യവസായത്തെ സാങ്കേതിക വിദ്യ നല്ലതു പോലെ സ്വാധീനിച്ചിട്ടുണ്ടത് വളരെ മികച്ച ഒരു കാര്യമാണ് യാത്രാ ചെയ്യുമ്പോളാൾക്കാർക്ക് ഒരുപാടാവശ്യങ്ങളുണ്ട് ആ ആവശ്യങ്ങളെല്ലാം പെട്ടെന്ന് നമ്മുടെ കയ്യിലെത്താൻ വേണ്ടിയിട്ടും ന പെട്ടെന്ന് എല്ലാ വിവരങ്ങളറിയാൻ വേണ്ടിയിട്ടും എല്ലാറ്റിനും ഈ സാങ്കേതികവിദ്യ നമ്മളെ സഹായിച്ചിട്ടുണ്ടൊരുപാട് ഇപ്പം പെട്ടെന്നൊരു യാത്ര പോകണമെങ്കിൽ തന്നെ നമുക്ക് വേഗം ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്യണം പണ്ട് കാലത്താണെങ്കിൽ അതൊന്നും നടക്കുകയില്ല കാരണം അന്ന് നമുക്കിപ്പം ടിക്കറ്റ് ബുക്ക് ചെയ്യണമെങ്കിൽ ആ സ്ഥലത്ത് പോയി അവിടെ ചെന്ന് ഇപ്പോൾ ക്യൂ ഒക്കെയുണ്ട് ക്യൂ നിന്ന് അങ്ങനെ നമുക്കാ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റത്തുളളൂ ഇത് പക്ഷെ ഇപ്പം അങ്ങനെയല്ല നമ്മളിപ്പം ജസ്റ്റ് നമ്മുടെ ഫോണെടുക്കുക നെറ്റോണാക്കുക ഏ ഏതാ ഏത് സൈറ്റിലാണോ പോകേണ്ടേ അവിടെ പോകാ എന്നിട്ട് ജസ്റ്റ് ടിക്കറ്റ് അന്ന് ബുക്ക് ചെയ്താൽ മതി പക്ഷെ അത് അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇതു വളരെ നല്ല രീതിക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ ഹോട്ടലുകൾ ബുക്ക് ചെയ്യാനാണെങ്കിൽ അതു പോലെ തന്നെ പണ്ടൊക്കെ ഹോട്ടലിൽ ചെന്നിട്ട് വേണം റൂമുണ്ടോന്നറിയണമെങ്കിൽ തന്നെ ഹോട്ടലിൽ ചെന്നവിടെ റിസപ്ഷനിൽ ചെന്ന് ചോദിച്ചാലേ ഹോട്ടലിൽ റൂം ഉണ്ടോ ഫ്രീയുണ്ടോ നമുക്കറിയാൻ പറ്റത്തുള്ളു പക്ഷെ ഇന്നത്തെ കാലത്താണെങ്കിൽ നമ്മുടെ ഫോണെടുത്തു രണ്ട് ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നമുക്കതറിയാൻ പറ്റും ഏതു സൈറ്റിലാണോ പോകേണ്ടേ അല്ലെങ്കിലേതിലാണ് ആപ്ലിക്കേഷനെടുക്കുക അതിനകത്ത് പോയി നോക്കിയാൽ മതി ആ ഹോട്ടലിൽ റൂം ഫ്രീയുണ്ടോ അതിൻ്റെ റേറ്റെങ്ങനെയാണ് ബാക്കി എല്ലാ എല്ലാ കാര്യങ്ങളും നമുക്കാ ഓൺലൈൻ മുഖേന അറിയാൻ പറ്റും നല്ല രീതിക്ക് പിന്നെ ഇപ്പം റേറ്റിംഗ് പരിശോധിക്കുന്നതാണെങ്കിൽ എപ്പോൾ ഹൊൽ ആ ഹോട്ടലിലെ റേറ്റിംഗ്സെങ്ങനെയാണ് നമുക്കിപ്പം ഒരിക്കലും അവിടെ ചെന്ന് ചോദിക്കാതെ അറിയാൻ പറ്റുകയില്ലായിരുന്നു പണ്ട് കാലത്ത് അല്ലെങ്കിൽ ഫോൺ വിളിച്ച് ചോദിക്കുന്നതാണെങ്കിലും സ്ഥല സാങ്കേതിക വിദ്യയാണല്ലോ അപ്പോൾ അതൊക്കെ വളരെ അധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഇന്ന് നമുക്ക് പിന്നെ ബസ്സ് അല്ലെങ്കിൽ ട്രെയിൻ ഒക്കെ ലഭ്യത പരിശോധിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ എ ഐ എ ഐ പിന്നെ ഓരോ ആപ്ലിക്കേഷൻസൊക്കെ വളരെ നല്ല രീതിക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കാരണം എന്താണെന്നു വെച്ചാൽ പണ്ടൊക്കെയാണെങ്കിൽ നമ്മൾ ബസ്സ് സ്റ്റോപ്പിൽ പോയി നിന്ന് ബസ്സ് വരുന്നതു വരെ നോക്കി വെയ്റ്റ് ചെയ്തു നിന്ന് വേണം ബസ്സിനൊക്കെ കയറുക പക്ഷെ ഇപ്പം ഓരോ ആപ്ലിക്കേഷനുണ്ട് മേക് മൈ ട്രിപ്പെന്നും പിന്നെ മൈ ബസ്സെന്നൊക്കെ പറഞ്ഞ് ആപ്ലിക്കേഷനുണ്ടപ്പം അതിനകത്ത് നോക്കിയാൽ ഏത് ബസ്സ് എപ്പം എവിടെ വരുമെന്നത് സമയത്ത് വരും നമുക്കറിയാൻ പറ്റും ആ സമയത്ത് തന്നെ ബസ്സവിടെ എത്തിയിരിക്കും നമുക്കപ്പം അവിടെ ആ സമയത്തവിടെ ചെന്ന് നിന്ന് ബസ്സ് വരുമ്പം കയറി പോയാൽ മതി പക്ഷെ പണ്ട് കാലത്ത് ഈ ബസ്സ് വരുന്നതിന് മണിക്കൂറുകൾ മുന്നേ അവിടെ വന്ന് നിന്ന് വെയ്റ്റ് ചെയ്തു നോക്കി നിൽക്കണമായിരുന്നു പക്ഷെ ഇപ്പം അതിൻ്റെ ഒന്നാവശ്യം ഇല്ല അതു കൊണ്ട് തന്നെ ഇത് നമുക്ക് വളരെ അധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് നമ്മുടെ സമയം ലാഭിക്കാൻ പറ്റും പിന്നെ ട്രെയിനാണെങ്കിൽ തന്നെ ട്രെയിൻ നമുക്കിപ്പം നേരത്തെയാണെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് വേണ്ടേ ബുക്ക് ചെയ്യാൻ പക്ഷെ ഇപ്പം അങ്ങനൊന്നില്ല ഇപ്പം ഒരു ഒരു മാസം മുന്നേയാണെങ്കിൽ നമുക്ക് നേരത്തെ ബുക്ക് ചെയ്യാൻ പറ്റും എങ്ങോട്ടേലിപ്പം ഇത് ലോംഗ് ട്രിപ്പ് പോകണമെങ്കിൽ ടിക്കറ്റിൻ്റെ ആവശ്യകത അനുസരിച്ച് നമുക്ക് എപ്പം വേണം എന്നു വെച്ചു നമുക്കിഷ്ടള്ളപ്പോൾ പോയി ബുക്ക് ചെയ്യാൻ പറ്റും പക്ഷെ പണ്ട് കാലത്തങ്ങനൊന്നും അല്ല പിന്നെ നമുക്കിപ്പോൾ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങാനാണെങ്കിൽ തന്നെ

അവർ നമ്മുടെ വീട്ട് പടിക്കൽ കൊണ്ടെത്തും എത്തിച്ചേരും ഇതൊക്കെ സാങ്കേതികവിദ്യ ഇല്ലെങ്കിൽ ഇതൊന്നും നടക്കുമല്ലോ അപ്പോൾ പിന്നെ ഫ്ലിപ്കാർട്ട് ആമസോൺ അങ്ങനത്തെ കുറേ ആപ്പുകളുണ്ട് അപ്പം ഈ ആപ്പൊക്കെ ഉപയോഗിച്ച് നമുക്ക് നമുക്കിഷ്ടമുള്ള സാധനം നമക്കിഷ്ടമുള്ളപ്പം വാങ്ങിക്കാം അപ്പോൾ അതൊക്കെ വളരെ നല്ല രീതിക്ക് മനുഷ്യരായി വളരാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ് പിന്നെ നമുക്ക് എന്തെങ്കിലും ഓൺലൈനിൽ വീഡിയോസ് കാണാനാണെങ്കിൽ തന്നെ യൂട്യൂബ് അതു പോലെ തന്നെ പല പല പല ആപ്ലിക്കേഷൻസുണ്ടപ്പോൾ നമു ക്കതൊക്കെ ഉപയോഗിച്ച് പല വീഡിയോ കാണാം പിന്നെ നമുക്കിപ്പോൾ എവിടെയെങ്കിലും പോകണമെങ്കിൽ തന്നെ കാലാവസ്ഥ അവിടുത്തെ കാലാവസ്ഥയൊക്കെ എങ്ങ് അറിഞ്ഞു വേണമല്ലോ പോകാൻ ഇപ്പം ഭയങ്കര മഴയാണെങ്കിൽ കുട എടുക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിലിപ്പോൾ ഫോൺ ജസ്റ്റൊന്ന് നോക്കിയാൽ മതി അവിടുത്തെ വെദർ ഒന്ന് ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെ പോയി എന്തൊക്കെ ആവശ്യങ്ങളും ആയിട്ടവിടെ ചെല്ലണം എന്ന് നമുക്ക് മനസ്സിലാകും പിന്നെ നമുക്ക് പഠിക്ക പഠന കാര്യങ്ങൾക്കാണെങ്കിലും ഇത് വളരെ നല്ല രീതിക്ക് നമ്മൾക്കുപകാരപ്പെടുന്നുണ്ട് ഇപ്പെന്തെങ്കിലും കാര്യം പെട്ടെന്നറിയണമെങ്കിൽ തന്നെ നമ്മുടെ ഫോണുകൾക്കിത് ഈ പല എ ഐ ആപ്പുകളുണ്ട് അവരോട് ചോദിച്ചാൽ മതി അപ്പം നമുക്കറിയാൻ പറ്റും പിന്നെ ഇപ്പോൾ ഹോസ്പിറ്റലിലാണെങ്കിൽ പോലും നമുക്കിപ്പോൾ ഹോസ്പിറ്റലിലെ ടിക്കറ്റുകൾ അല്ലെങ്കിൽ ചീട്ടുകൾ നമുക്ക് നേരത്തെ അവിടെ ചെന്നാലേ എടുക്കാൻ പറ്റത്തുള്ളു പക്ഷെ ഇപ്പം അങ്ങനെയല്ല നമുക്ക് ജസ്റ്റ് നമ്മുടെ ഫോണിൽ രണ്ട് ടാപ് ചെയ്തു കഴിഞ്ഞാൽ അതെടുക്കാൻ പറ്റും പിന്നെ എന്തെങ്കിലും പെട്ടെന്നൊരാവശ്യം വന്നു കഴിഞ്ഞാൽ ഇപ്പം നമുക്കാംബുലൻസ് വിളിക്കണം അല്ലെങ്കിൽ പോലീസിനെ വിളിക്കണം അല്ലെങ്കിൽ ഫയർ ഫോസ് വിളിക്കണം എന്തു ചെയ്യണം ജസ്റ്റ് നമ്മൾ ഫോണെടുത്തത് ആ നമ്പറിലേക്കവർക്ക് അത് അതായ നമ്പറുണ്ടവരത് പല പല നമ്പറുണ്ട് അപ്പം അതിലേക്ക് വിളിച്ചാൽ മതി അപ്പം നമുക്ക് കറക്റ്റ് അവിടെ കോളേജെല്ലാം അവിടെ നമുക്ക് വേണ്ട സമയത്തവിടെ എത്തിച്ചേരും നമുക്ക് ഹെൽപ്പ് ചെയ്യും ഇതെല്ലാം സാങ്കേതിക വിദ്യയാണ് ഹെൽപ്പ് ചെയ്യുന്നത് നമ്മളെ പിന്നെ ഇത് യാത്രാ ഇപ്പം യാ ഞാൻ ഇത് പറയാൻ കാരണം യാത്ര പോകുമ്പം നമുക്കിങ്ങനെ പല ആക്സിഡെൻറ്റ്കളുണ്ടായേക്കാം അപ്പം ആംബുലൻസിനെ പോലീസിനെയൊക്കെ വിളിക്കേണ്ടാവശ്യം പോലും വരുന്നില്ല സാങ്കേതിക വിദ്യ ഉള്ളതു കൊണ്ടാണിതെല്ലാം നടക്കുന്നത് പിന്നെ പറഞ്ഞ കാര്യങ്ങളിപ്പം നമുക്ക് വീട്ടിലിരുന്നു പഠിക്കുന്നതല്ല ഇപ്പം യാത്ര പോകുമ്പം പഠിക്കുന്നത് അപ്പം നമുക്ക് എന്തു കൊണ്ടും യാത്രാ വ്യവസായത്തെ എല്ലാം ഇതെല്ലാം ആ നല്ല രീതിക്ക് സഹായിച്ചിട്ടുണ്ട്